സംസ്കൃതം ഇംഗ്ലീഷ് ഭാഷകൾ മലയാള ഭാഷയെ സ്വാധീച്ചത് എന്നു പറയുമ്പോൾ സൊ മലയാള ഭാഷായെന്നു പറയുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛന് തുടര് ന്റെ ഒരു ദീദോ എന്നു പറയുന്ന ഒരു ഭാഷയാണ് അതാപ ഇതൊരു തുഞ്ചന് പറമ്പിലാളിന്റെ മലയാള ബാഷ ചിറകടിച്ചുയര്ന്ന ഒര നാടാണത് മലയാള മാ മലയാള ഭാഷ ഇതിന്റെ പ്രധാന ഒരു ആൾ തുഞ്ചത്ത് എഴുത്തച്ഛനാണ് അദ്ദേഹത്തിന്റെ സ്മാരകവും മറ്റും മറിച്ചും ഇവിടെ തിരൂര് തുഞ്ചന് പറമ്പിൽ ഉണ്ട് അത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എഴുത്താണി എഴുത്തോലയൊക്കെ അവിടെ കാണാന് ക സാധിക്കും ഇതിന്റെ ഇപ്പോൾ മലയാള ഭാഷ ഇം ഇംഗ്ലീഷ് ഭാഷകൾ പറയുമ്പോൾ മലയാള ബ മലയാളത്തിനെ കുറച്ച് ഇംഗ്ലീഷ് കലര്ന്ന് മംഗ്ലീഷിലായെന്നു ത്രെ സംസ് ഇതും സംസാ സംസാരിക്കണത് ചെറിയ ഓരോ വാക്കുകളൊക്കെ വരുമ്പോൾ അത് മംഗ്ലീഷിലും ചില ഇംഗ്ലീഷിലും ചില വാക്കുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട് ചെറിയ വാ ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ ഇപ്പം ആണ് ഉപയോഗിക്കണത് അത് മലയാളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അതിന്റെ ഇംഗ്ലീഷ് ഭാഷക്ക് കടന്നു വരും ഇംഗ്ലീഷിലുള്ള വാക്കുകൾ കടന്നു വരുന്നത് സംസ്കൃതത്തിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ചിലെയ ഒരുപാട് ഒരു കൂട്ടിക്കലര്ന്നൊരു ഭാഷകളായിട്ടാണിപ്പോൾ സ സംസാരങ്ങൾ സം അത് സ ഭാഷകളെക്കുറിച്ച് സം പറയുമ്പോൽ സംസാരിക്കണത്